ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് കളികൾ എങ്ങനെ സഹായിക്കുന്നതാണ് ചോദ്യം അപ്പോൾ നമ്മളെ നമുക്ക് നമ്മുടെയും മാനസികമായ ആരോഗ്യം വളരെയധികം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് വച്ചാൽ ഉപയോഗം അല്ലെങ്കിൽ വളരെയധികം ഉപകാരം ഉള്ളതാണ് ഉപകാരം എന്നു പറഞ്ഞാൽ അത് ഒഴിച്ചുകൂടാനാവാത്തതാണ് ശാരീരികമായ ആരോഗ്യവും മാനസികവുമായ ആരോഗ്യവും അതിൻ്റെ ക്ഷേമത്തിന് കളികൾ വളരെയധികം നന്നായിട്ട് സഹായിക്കും ശാരീരികമായിട്ട് നമുക്ക് നമ്മുടെ കൈകളും കാലുകളും ഉപയോഗിക്കുന്ന രീതിയിലുള്ള കളികൾ വളരെയധികം ഉണ്ട് ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്ക്കറ്റ്ബോൾ അങ്ങനെ കുറേ കളികൾ ഗെയ്മുകൾ ഉണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ തൊട്ടാൽ ഭ്രാന്തി ഒളിച്ചാൽ ഭ്രാന്തി അല്ലെങ്കിൽ ഒളിച്ചുകളി അങ്ങനെ കുറേ കളികളുണ്ട് ഇതൊക്കെ മാനസികമായിട്ട് നമ്മൾ നമ്മളെ ഒരു നല്ലൊരു മനുഷ്യനായി മനുഷ്യനാക്കി തീർക്കും കാരണം ഇതിൽ നമ്മൾ കൂടുതലും ഒരു ടീം അംഗങ്ങൾ ടീം അംഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെഴുകൽ ഇടപെടലുകൾ ഇടപഴകുന്നതും ഇടപെടുന്നതും ഇടപെടലുകളും വളരെയധികം നന്നായിട്ട് നമ്മുടെ മാനസിക മനസ്സിനെ ശാന്തമാക്കുകയും നമ്മുടെ മനസ്സിനെ പലപല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ വേണ്ടി സഹായിക്കുകയും അതെങ്ങനെ നേരിടണമെന്ന് സഹായിക്കുകയും അതിനെ പൊരുത്തപ്പെടാനും ലൈക്ക് ഒരു കൂട്ടം ആൾക്കാരിലേക്ക് നമ്മളെ ഇട്ടാൽ അതിൽ അതുമായി പൊരുത്തപ്പെടാനും നമ്മളെ സഹായിക്കും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമുക്കത് അതിൽ നിന്ന് പഠിക്കാനും കഴിയും അങ്ങനെയാണ് മാനസികമായും നമ്മളെ കളികൾ സഹായിക്കുന്നത് ശാരീരികമായും നമ്മൾ നമ്മുടെ ഊർജ്ജത്തെ എന്തെന്നും എന്നുമെന്നും എന്നുമെപ്പോഴും അതിനെ നിലനിർത്തുവാൻ വേണ്ടിയും വളരെയധികം നമ്മെ സഹായിക്കും